ഹലോ ഇത് കെ എസ് ഇ ബി ഓഫീസല്ലേ

ഞാന് എൻ്റെ വീടിൻ്റെ മേൽക്കൂരയില് സോളാർ പാനൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടു തീരുമാനിച്ചിട്ടുണ്ട് അപ്പോള് ബാക്കി കൂടുതൽ പ്ലാന്റുകൾ വയ്ക്കാനാണു തീരുമാനം ബാക്കി വരുന്ന വൈദ്യതി ഞങ്ങൾക്കു വിൽക്കുകയും ചെയ്യണം അപ്പോള് അത് ആ ഒരു വർക്ഷോപ്പിൽ പങ്കെടുത്തിരുന്നു അപ്പോള് അവിടുന്ന് അതിനുള്ള ഉപദേശങ്ങളൊക്കെ അവര് തന്നിട്ടുണ്ട് ഓക്കെ ആ ആ അപ്പോള് അതിന് കണക്ഷനുള്ള അപേക്ഷ വേണം അതിനെന്തൊക്കെയാണു ചെയ്യേണ്ടത് ആ ഓക്കെ അപ്പോള് അതിൻ്റെ പേപ്പേഴ്സ് കൊണ്ട് കെ എസ് ഇ ബി ഓഫീസിലേക്കു വരികയാണോ വേണ്ടത് ഓക്കെ ആ സൗരോര്ജ പാനല് വച്ചാല് നിങ്ങള്ക്കു വൈദ്യുതി ബില്ല് കുറയ്ക്കുകയും ചെയ്യാം നിങ്ങള്ക്കു വൈദ്യതി കിട്ടുകയും ചെയ്യും അതു വളരെ ഉപകാരമാണെങ്കില് മറ്റുള്ളവർക്കും സൗരോര്ജ ഉൽപാദനം സുഗമമാക്കാമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് അതു വളരെ നല്ല കാര്യമല്ലേ

ഞാനങ്ങോട്ടു വരാം കെ എസ് ഇ ബി ഓഫീസിലേക്ക് നിങ്ങള് ഒക്കെ പെട്ടെന്ന് റെഡിയാക്കിത്തരണം എന്തൊക്കെയാണ് അതിനു ചെയ്യേണ്ടതൊക്കെ എളുപ്പത്തില് ചെയ്തു തരണം കെട്ടോ ഓക്കെ താങ്ക്യൂ